നേരിട്ട് ഏതെങ്കിലും പാട്ടുകാരൻ്റെ ലൈവ് പേർഫോമൻസൊന്നും കണ്ടിട്ടില്ല കാണാനൊരുപാട് ആഗ്രഹമുണ്ട് ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല നേരിട്ട് കേൾക്കാനെനിക്ക് ആഗ്രഹം എനിക്ക് രണ്ടുമൂന്ന് പാട്ടുകാരെ നേരിട്ട് കാണണമെന്നുണ്ട് ഒന്ന് മധു ബാലകൃഷ്ണൻ വിധു പ്രതാപ് സിതാര ഇവരുടെയൊക്കെ പാട്ടുകളൊക്കെ നേരിട്ട് കാണണമെന്നുണ്ട് പിന്നെ സുജാത ചിത്ര ഇവരൊക്കെയൊന്ന് നേരിട്ട് കണ്ടാല് നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട് അവരുടെയൊക്കെ പാട്ടുകള് കേട്ടാല് പിന്നെയും പിന്നെയും ആ പാട്ടുകള് കേൾക്കണമെന്ന ഒരു തോന്നല് നമുക്കുണ്ടാകും പഴയ പാട്ടുകളാണെങ്കില് ആ പാട്ടിനെ സംബന്ധിച്ചിടത്ത് അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളും കാര്യങ്ങളും എല്ലാമുണ്ട് അന്നേരം അതിനനുസരിച്ച് നമുക്ക് ചിലപ്പോള് ഒരു പാട്ട് നമ്മടെ ഫേവറേറ്റ് ആയിരിക്കും ആ ഫേവറേറ്റ് നമുക്ക് ആ പാട്ട്കാരായിരിക്കും ഫേവറേറ്റ് പാട്ടിനേക്കാട്ടിലും നമുക്ക് കൂടുതല് താൽപര്യം ഇപ്പോള് പാട്ട് കേള്ക്കുന്നതിനേക്കാളും കൂടുതല് പാട്ടുകാരുടെ ആ പാട്ട് കേള്ക്കാനായിരിക്കും ആ പാട്ടുകാരായിരിക്കും ആ പാടുന്നത് അതൊരു എന്താപറയാ നല്ലൊരു എക്സ്പീരിയൻസാണ് പാട്ട് അവരുടെ ഓരോ ഓരോരുത്തര്ക്കും ഓരോ രീതിയിലുള്ള രീതിയിലാണ് ഓരോർത്തര് പാട്ട് പാടുന്നത് ഇപ്പോള് മധൂ ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്ത് അദ്ദേഹത്തിന്റെ സ്വരം അദ്ദേഹത്തിൻ്റെ ധൃഢതയായിട്ടുള്ള ആ പാട്ടാണ് എല്ലാവർക്കും ഇഷ്ടം ഒരുപക്ഷേ വിധു പ്രതാപിൻ്റെ സൗണ്ടായിരിക്കും അവിടെ ഏറ്റവും മികച്ചത് അദ്ദേഹം പാടുന്ന രീതി വേറെ രീതിയായിരിക്കും സോഫ്റ്റ് ആയിട്ട് പാടും മറ്റേ മധു ബാലകൃഷണൻ നല്ല ഗാംഭീര്യത്തോടെ പാടും അങ്ങനെ ഓരോരോരോ രീതിയിലാണ് ഓരോ പാട്ടുകാരും അപ്പോള് നമ്മള്ക്ക് ഓരോ പാട്ടുകരെ സംബന്ധിച്ചിടത്ത് അവര് പാടുന്ന കാര്യങ്ങള് വ്യത്യസ്തമായിരിക്കും അപ്പോള് നമുക്ക് അത് കാണാനുള്ള ഒരു ത്വര കൂടുതലായിട്ട് വരുകയും ചെയ്യും